ഒരു നല്ല നർത്തകിയിൽ നിന്ന് ഒരു മികച്ച നർത്തകിയെ വേറിട്ട് നിർത്തുന്നത് പ്രധാനമായിട്ടും എന്താ പറയുക മുദ്രകൾ ഭാവങ്ങൾ താളം ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഥകളി അല്ലെങ്കിൽ ഭരതനാട്യം ഏതുമായിക്കോട്ടെ ഇതൊക്കെ ഒരു കലാരൂപങ്ങളാണ് അപ്പോൾ ഇതിലൂടെ എന്തെയ്യാണ് ഓരോ കഥകൾ നമ്മൾ കാണികളിലേക്ക് എത്തിക്കുകയാണ് അല്ലെങ്കിൽ സദസ്സിൽ ഇരിക്കുന്നവരിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മുദ്രകൾ ഭാവങ്ങൾ താളം ഇതെല്ലാം എന്തു ചെയ്യണം കറക്റ്റ് ആയിരിക്കണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നെങ്കിൽ ഭാരതനാട്യം എടുക്കുന്നു ഭരതനാട്യത്തിൽ പല പല കഥകൾ നമ്മൾ ഭരതനാട്യത്തിലൂടെ അവതരിപ്പിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ കൃഷ്ണൻ്റെ ജനനത്തെപ്പറ്റി ആയിരിക്കാം ഒരു കഥ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ പല പല അവതാരങ്ങളെ പറ്റി ആയിരിക്കാം ഒരു കഥ അല്ലെങ്കിൽ കൃഷ്ണൻ്റെയും രാധയുടെയും പ്രണയം അതിനെ പറ്റി ആയിരിക്കും അപ്പം ഓരോരോ കഥകളുണ്ട് ആ കഥകൾ നമ്മൾ ഭാവങ്ങളിലൂടെയും മുദ്രകളിലൂടെയാണ് എന്തു ചെയ്യുന്നത് ആ ഒരു കഥ കാണികളിലേക്ക് അല്ലെങ്കിൽ സദസ്സിൽ ഇരിക്കുന്നവരിലേക്ക് എത്തിക്കുന്നത് കഥകളിയിലായാലും അങ്ങനെ തന്നെയാണ് ഏതൊരു കല കുച്ചിപ്പുടി ആയാലും മോഹിനിയാട്ടം ആയാലും ഏതിലായാലും ആ കഥ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയാണ് എന്തു ചെയ്യുന്നത് കാണികളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മുടെ താളം അല്ലെങ്കിൽ മുദ്ര പിന്നെ ഭാവം ഇതെല്ലാം കറക്റ്റായിരിക്കണം കൃത്യമായിരിക്കണം അല്ലെങ്കിൽ സദസ്സിൽ ഇരിക്കുന്നവർക്ക് എന്താ കഥയെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഒരു മികച്ച ന നർത്തകിക്ക് എന്തു ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ തരത്തിൽ അതായത് ക അതേ കൃത്യമായിട്ടുള്ള ഭാവവും അതിനനുസരിച്ച് താളവും അതിനനുസരിച്ച് മുദ്രയും കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു ആൾക്ക് ആളാണ് മികച്ച നർത്തകി എന്ന് പറയുന്നത് ചില നർത്തകിമാരുണ്ട് ചിലപ്പോൾ അവരുടെ ഭാവം അധികം എന്താ പറയുക സമ്പൂർണം ആയിരിക്കില്ല ചിലപ്പോൾ താളം വ്യത്യസ്തമാകാറുണ്ട് ചിലർക്ക് മുദ്ര ചിലപ്പോൾ മുദ്രകളൊക്കെ എന്തു ചെയ്യാത്തതല്ല ആ ഒരു കറക്റ്റായിട്ട് അവർ കാണിച്ചെന്ന് വരില്ല മുദ്രകൾ മുദ്രകളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ആ കാണികളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ കാണികൾക്ക് മനസ്സിലാവില്ല എന്താ ഏത് കഥയാണ് ഈ ഒരു കലാരൂപത്തിലൂടെ അവരിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഒരു മികച്ച നർത്തകിക്ക് മാത്രമേ എന്തു ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ഈ പറഞ്ഞ കാര്യങ്ങളുള്ള ആളാണ് ഒരു മികച്ച നർത്തകി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളു അവർക്ക് മാത്രമേ ആ കറക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കഥ സമ്പൂർണ്ണമായിട്ട് കാണിക്കാൻ കാണികളിലേക്ക് എത്തിക്കാൻ ആയിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ഒരു മികച്ച നർത്തകിയും ഒരു നല്ല നർത്തകിയും തമ്മിലുള്ള വ്യത്യാസം നല്ല നർത്തകിയെന്ന് പറയുമ്പം അവർ അതെ നർത്തകി തന്നെയാണ് അവർ ആ ഒരു കലാരൂപം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു നൃത്തരൂപം അതിന് അതിനനുസരിച്ച് ആ കഥക്കനുസരിച്ചിട്ട് അവർ കളിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സമ്പൂർണ്ണത വ എത്തിയെന്ന് വരില്ല ചിലപ്പോൾ താ താളം പിഴച്ച് പോകാം ചിലപ്പോൾ ഭാവങ്ങൾ യഥാ യഥാ ഒരുപാട് ഭാവങ്ങളുണ്ടല്ലോ ആ ഭാവങ്ങളൊന്നും ചിലപ്പം മുഖത്ത് വന്നെന്ന് വരില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു സമ്പൂർണ്ണതയില്ല അവരൊരു എന്നാലും അവരൊരു നല്ലൊരു നർത്തകിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാൽ നമ്മൾ ഇപ്പോൾ ശോഭന എടുക്കുകയാണ് എക്സാമ്പിൾ എടുക്കുകയാണ് അവരുടെ ഓരോ മുഖത്തുള്ള ഭാവങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ഭാവം താളം മുദ്രകൾ എല്ലാം സമ്പൂർണ്ണമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാകും ആ അവർ ഈ ഒരു കഥയെ പറ്റിയാണ് അതിലൂടെ കാണിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ശോഭനയുടെ എക്സ് മുഖഭാവങ്ങൾ അപ്പോൾ അതുപോലെ അത് ശോഭന ഒരു മികച്ച നർത്തകിയാണ് നമ്പർ വൺ നർത്തകിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം കാരണം എല്ലാം പെർഫെക്റ്റ് ആണ് അവരുടെ പോ കോസ്റ്റ്യൂം അത് നമ്മൾ വിട്ട് പോയി കോസ്റ്റ്യൂം ആയാൽ തന്നെയും എല്ലാം പെർഫെക്റ്റ് ആണ് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ കൃഷ്ണനെ പറ്റിയാണ് ഒരു ഭരതനാട്യം അല്ലെങ്കിൽ ആ ഭരതനാട്യത്തിലൂടെ നമ്മൾ കാണികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് കൃഷ്ണൻ്റെ കഥയാണെങ്കിൽ ജനനത്തിൻ്റെ കഥയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നീലയായിരിക്കും പൊന്മാൻ നീല കളർ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും എന്തു ചെയ്യുക പറയുക ആ ഒരു കോസ്റ്റ്യൂം പോകുന്നത് അപ്പോൾ കളറിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതും ഒരു ഫാക്റ്റർ തന്നെയാണ് ഒരു മികച്ച നർത്തകി എന്ന് കാണിക്കാനായിട്ട് എന്നാലും സാധാരണ ഒരു നർത്തകി എടുത്താലും എന്താ പറയുക ഈ ഭാവം താളം പിന്നെന്താണ് പറയുക മുദ്ര ഇതൊക്കെയാണ് വളരെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു നല്ല നർത്തകിയും മികച്ച നർത്തകിയും തമ്മിൽ അല്ലെങ്കിൽ ഒരു മികച്ച നർത്തകിയെ നല്ല നർത്തകി ഒരു നല്ല നർത്തകിയിൽ നിന്ന് വ്യത്യസ്തമായി നിർത്തുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്